ഹലോ നയൻ്റി എയിറ്റീസ് നൊസ്റ്റാൾജിക്ക് റസ്റ്റോറൻ്റിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കേ ഓക്കേ ഓക്കേ

നമുക്ക് സാധാരണ രീതിയിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് പിടിയും കോഴിയും മാമിന് എങ്ങനെയാണ് ഇവിടെ വന്നു കഴിക്കാനാണോ അതോ എന്തെങ്കിലും ഫംഗ്ഷനു വേണ്ടിയാണോ ഓക്കേ ഓക്കേ എത്ര പേർക്കുളളതാണ് അടുത്ത ആഴ്ച അല്ലേ ഓക്കേ ഓക്കേ കൂൾ ഡ്രിങ്ക്സ് മോജിറ്റോസ് ഉണ്ട് ജ്യൂസ് ഉണ്ട് ലൈമുണ്ട് ആറ് മൊജിറ്റോ അല്ലേ ഓക്കേ മാം ആ ആ ഓക്കേ ഓക്കേ ഓക്കേ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമ്മളവിടെ എത്തിച്ചു തരുന്നതല്ലേ അപ്പോൾ നമുക്കവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും കുഴപ്പമില്ല ഗൂഗിൾ പേ ആണെങ്കിലും കുഴപ്പമില്ല ഫോൺപേ ആണെങ്കിലും വാര്യാട് വരെയല്ലേ എങ്ങനെയാണ് ഇന്ന് വൈകുന്നേരത്തേക്കാണോ മാം ഇന്ന് വൈകുന്നേരത്തേക്കല്ലേ ഇപ്പോൾ ടൈമ് അഞ്ചര ഒരു ഏഴ് മണിക്കുള്ളിൽ മതിയോ നമുക്ക് ചെറിയൊരു പ്രീപറേഷന് മാമിന് എത്ര മണിയാകുമ്പോഴത്തേക്കാണ് വേണ്ടത് ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം ഏഴ് മണിയല്ലേ ഓക്കേ മാം ഏഴ് മണി ആകുമ്പം നമ്മൾ മാക്സിമം ആ ഏഴ് മണി ആകുമ്പോഴത്തേക്കും എന്തായാലും ഓക്കേ ആക്കിത്തരാം പിന്നെ വേറേ എന്തെങ്കിലും വേണോ എനിതിങ്ങ് വേറേ എന്തെങ്കിലും സ്വീറ്റ്സ് എന്താ ചെറു കടികളാണോ ഉദ്ദേശിച്ചത് അതോ ഇങ്ങനെ മൈസൂർ പാക്ക് ഡെസെർട്ട് പോലെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല മാം ഒന്നാമത് മഴക്കാലമല്ലേ അപ്പോൾ അതങ്ങനെ പോവുന്നില്ല അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല ഐസ് ക്രീം ഐസ് ക്രീം അങ്ങനത്തെ എന്തെങ്കിലും മതിയോ ഇല്ല വേറെയൊന്നുമില്ല മാം ആ ഓക്കേ മാം ആ ഓക്കേ ഓക്കേ ഓക്കേ മാം ഏഴ് മണിയാകുമ്പോൾ എത്തിക്കാം ഓക്കേ മാം താങ്ക് യു